ഈ ആധുനിക കാലത്ത് ഈ ഇന്ത്യയില് വളരെ വ്യവസായ പരം വ്യവസായികമായി വളരെ വളരെ ഉയർന്ന് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കൂടുതൽ ഫാക്ടറികളും കമ്പനികളും കടകളും ബിസിനസ് രംഗത്ത് ആളുകൾ വളരെ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്നു വ്യാ വിഴിഞ്ഞം തുറമുഖത്താണെങ്കിലും വേറെ വേറെ ഒത്തിരി കമ്പനികള് പുതിയ കമ്പനികള് മദ്യത്തിൻ്റെ ആണേലും പുതിയ പുതിയ കമ്പനികളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പം ഈ മേഖലകളിൽ ഒക്കെ എല്ലാം നമ്മള് പൈസയെല്ലാം കയ്യിൽ കൊണ്ട് നടക്കുന്നതെല്ലാം പാടായി പാടാണിപ്പം നമ്മളോട് എങ്ങനെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് ബാങ്കിംഗ് വഴിയൊക്കെ നമ്മള് പൈസ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ചരക്കുകൾ പല വ്യവസായങ്ങൾക്കും ചരക്കുകൾ നമ്മള് ഒക്കെ കയറ്റി കയറ്റി അയക്കുകയും ഇറക്കുകയും ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത് ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരണങ്ങളാണ് വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന ഘടകങ്ങളാണ്